എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പാട്ടിനോട് എത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടം ആണ് ഞൻ ചെറുപ്പം തൊട്ടിട്ട് പാട്ടിന്റെ ലോകത്ത് കളിച്ച് വളർന്ന് വന്ന ആളാന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് പാട്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടം ആണ് പിന്നെ ഞാൻ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോളാണ് ആദ്യമായിട്ട് ശരിക്കും പാട്ട് പഠിക്കാനായിട്ട് പോവുന്നത് ആ സമയെത്തൊക്കെ ആ സമയത്ത് ഞാൻ ഒരു പാട്ട് ക്ലാസിലേക്ക് ആണെന്നുണ്ടെങ്കിലും എത്തിപ്പെടാൻ കാരണം ആ ആ സൊ ആ അന്നൊരു വീട്ടിലേക്ക് എൻറെ വീ എൻറെ വീട്ടിലോട്ട് ഒരു അപ്പാ അപ്പൂപ്പൻ വന്നു ആ അപ്പൂപ്പനാണ് എന്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് ഒരു ദിവസം പാട്ട് പാടാൻ പറഞ്ഞു അപ്പം ഞാൻ പാട്ട് പാടി അപ്പോൾ ഞാൻ പാട്ട് പാടിയപ്പോൾ ആ അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടം ആയിട്ട് പറഞ്ഞു അടുത്തൊരു പാട്ട് ക്ലാസ് ഉണ്ട് അപ്പോൾ എന്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ അവിടെ ചേർത്തിക്കൂടേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ആ പാട്ട് ക്ലാസിൽ ചേർന്നു എന്നിട്ട് ഞാൻ പാട്ട് പഠിച്ചു അവിടുത്തെ മാഷിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നിട്ട് എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ച് സംഗീത പാട്ട് പഠിക്കുമ്പോൾ അതിലുള്ള സ്വരങ്ങൾക്കും കീർത്തനങ്ങൾക്കും ഒക്കെ മുന്നേ തന്നെ സ്വരങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ എന്നെ കിർത്തനം പഠിപ്പിച്ചുതുടങ്ങി അങ്ങനെ ഞാൻ ഓരോരോ അമ്പലത്തിലും പല ക്ഷേത്രങ്ങളിലും അങ്ങനെ പലയിടത്തും ഞാൻ പോയി പാടാൻ തുടങ്ങി പിന്നെ എനിക്ക് അന്ന് തോ തൊട്ടിട്ട് ഒരുപാട് അവസരങ്ങൾ ഈ പാട്ടിന്റെ ലോകത്ത് ലഭിച്ചിട്ടുണ്ട് പിന്നീട് ഈ പാട്ടിന്റെ ഞങ്ങ ഞങ്ങളുടെ പാട്ട് ക്ലാസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞങ്ങളൊരു പാട്ടുസംഘം തുടങ്ങി മറ്റു പല സ്ഥലങ്ങളിൽ ഈ കല്യാണ കച്ചേരികൾക്കും പിന്നെ അമ്പലത്തിന്റെ വല്ല പരിപാടികൾക്കും അങ്ങനെയുള്ള പല പരിപാടിക്കൽകും ഗാനമേളയ്ക്കും അങ്ങനെ കുഞ്ഞി കുഞ്ഞി പരിപാടികളൊക്കെയായിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ പോയിത്തുടങ്ങി അങ്ങനെ ഒരു ഒരു സമയത്ത് എനിക്ക് പാട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രമായിരുന്നു എന്റെ ലോകം അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അതിൽ തന്നെ മുഴുകി നടന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ചെറുതുരുത്തി കലാമണ്ടലത്തിൽ പഠിക്കണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ അത് നടന്നില്ല പക്ഷേ ഇന്നും എനിക്കെന്റെ മുന്നിൽ പാട്ട് എന്നുള്ള ഒരു ലോകം തുറന്ന് കിടക്കുന്നുണ്ട് ഇപ്പോളും ഞാൻ ആ ലോകത്തിൽ ആസ്വദിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്